അതായത് പണ്ടത്തെക്കാലത്തൊക്കെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത്തിൻ്റെ കാരണം ചിലപ്പോൾ ദാരിദ്രോ തൊഴിലില്ലായ്മയോ അങ്ങനെ ഒക്കെയാണെന്ന് വിചാരിക്കാം പക്ഷേ ഇപ്പം അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇന്നത്തെ കാലത്തെണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതൊന്നുവല്ല കാരണം ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അതായത് പീഡിപ്പിക്കുന്ന ആ ഒരു കാലോണ് അതായത് ഇപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികൾ അതായത് അമ്മ പെങ്ങൾ വ്യത്യാസമില്ലാണ്ട് അതായത് അച്ഛനും അച്ഛൻ കുട്ടിനെ പീഡിപ്പിക്കുന്നു അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും അതിപ്പോഴത്തെ കാലത്താണ് നടക്കുന്നത് അപ്പം അതാണിപ്പോൾ മെയിൻ ആയിട്ടുള്ള കുറ്റകൃത്യമെന്ന് പറഞ്ഞാൽ അതാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരേയൊരു കഴിവുകേട് കൊണ്ടാണ് അതിത്രേം വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റ് അതിന് അനുസരിച്ചുള്ള ഒരു ഇതെടുക്കുന്നില്ല അതായത് കോടതി അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഓരോരുത്തർ ഓരോ കുട്ടികളേയും പീഡിപ്പിച്ചോണ്ടിരിക്കുന്നത് ഒന്നര വയസ്സുള്ള കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന ഒരു കാലമാണിപ്പോൾ അപ്പം അതാണ് മെയിൻ പ്രശ്നം എനിക്കതാണിപ്പോൾ ഇപ്പോഴത്തെ ഒരു കുറ്റകൃത്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അതാണിപ്പോൾ തോന്നുന്നത്